എൻ്റെ വീട് അങ്കമാലിയിലാണ് അങ്കമാലി പ്രദേശത്തിൽ പ്രധാനമായിട്ടും മൂന്ന് കോളേജുകളാണുള്ളത് ഒന്ന് സെൻട് ആൻസ്സ് രണ്ട് ഡിസ്റ്റ് മൂന്ന് മോണിംഗ് സ്റ്റാറ് ഡിസ്റ്റിലെ എൻ്റെ ഒരുപാട് ഫ്രെണ്ട്സ്സ് അവിടെ പഠിക്കുന്നുണ്ട് അതൊരു മിക്സഡ് കോളേജ് ആണ് എൻ്റെ ഫ്രെണ്ട്സ്സ് പഠിക്കുന്ന കോഴ്സുകളെന്ന് പറഞ്ഞാൽ ബികോമ് എംകോമ് അതുപോലെ തന്നെ എംബീഎ ഈ കോഴ്സുൾക്കാണ് കൂടുതലായിട്ട് എൻ്റെ ഫ്രെണ്ട്സൊക്കെ അവിടെ പഠിക്കുന്നത് പിന്നെ മോർണിങ് സ്റ്റാറിലാണെങ്കിൽ അതൊരു ഗേൾസ് ഒൺളീ കോളേജ് ആണ് അവിടെ എൻ്റെ ഒരു ഫ്രെണ്ട് പഠിക്കുന്നുണ്ട് ബിയേക്കാണ് പഠിക്കുന്നത് പിന്നെ സെൻടാൻസ്സ് സെൻടാൻസിലെ എൻ്റെ മൂന്ന് കസിൻ സിസ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട് അവർ എംകോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആണ് അവിടെ പഠിക്കുന്നത് ഈ മൂന്ന് കോളേജുകളുടെയും കാര്യം പറയുകയാണെങ്കിൽ മൂന്ന് കോളേജുകളിലും നല്ല രീതിയിൽ തന്നെയാണ് ടീച്ചേഴ്സും എല്ലാം പഠിപ്പിക്കുന്നതും എക്സ്ട്രാ കരിക്കുലർ ആക്റ്റിവിറ്റീസ്സ് എല്ലാം ഈ മൂന്ന് കോളേജുകളിലും ഉണ്ട്